ഒരു വര്ഷത്തിൽ പല കാലാവസ്ഥയിലും നമുക്ക് ചെയ്യാന് പറ്റുന്നൊരു കൃഷിരീതി കൃഷികളാണ് നെല്ല് വാഴ ഇഞ്ചി ചേന മുതലായവ ഇതൊക്കെ ഒരുവിധം എല്ലാ കാലവസ്ഥയിലും ചെയ്തു കഴിഞ്ഞാല് വിജയകരമായി നമുക്ക് വിളകള് കിട്ടുന്നൊരു കൃഷികളാണ് അതുകൊണ്ട് തന്നെ കര്ഷകന് ഈ കൃഷികളൊക്കെ എല്ലാ കാലാവസ്ഥയിലും ചെയ്യാം